ഈ ചോദ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റിൻ്റെ പരസ്യമാ വരുന്നത് കിസ്സ് മീ ക്ലോസ് യുവർ ഐസ് കിസ്സ് മീ എന്ന് വരുന്ന ആ പരസ്യമാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സ്വീറ്റ്സ് പ്രത്യേകിച്ച് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളാണേലും ഇത് കാണുമ്പോൾ ഏത് എത്ര എത്രെണ്ണം വാങ്ങി കൊടുത്താലും പിന്നെയും പിന്നെയും വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ വഴക്ക് ഉണ്ടാക്കുന്നൊരു സാധനമാ അപ്പോൾ അതിന്റെ ആ ടേസ്റ്റും അതിന്റെ ആ ഒരു വായിലിടുമ്പോൾ അലിഞ്ഞ് അലിഞ്ഞ് പോകുന്ന ആ രീതിയൊക്കെ കൊണ്ടായിരിക്കാം പിന്നെ യൂട്യൂബ് എടുത്താൽ എപ്പോഴും ഇങ്ങനത്തെ പരസ്യങ്ങളല്ലെ വരുന്നത് യൂട്യൂബ് എടുത്താലും ആഡ് വരും അങ്ങനെയുള്ള കാര്യമാണ് ടി വി ഓൺ ആക്കിയാലും ഈ പരസ്യങ്ങൾ വരുന്നത് മനുഷ്യന്റെ മനസ്സിന്റെ സ്ഥാനം പിടിച്ചിരിക്കുകയാ പരസ്യങ്ങൾ കാരണം നല്ല നല്ല സാധനം ക്വാളിറ്റിവൈസ് നല്ലതാണെങ്കിൽ ആ ആ സാധനങ്ങൾ എന്തായാലും ആ പരസ്യങ്ങൾ വിജയത്തിൽ എത്തിക്കുന്നതിന്റെ കാരണം തന്നെ അതാണതിന്റെ ക്വാളിറ്റി നമ്മളത് വാങ്ങി കഴിച്ച് കഴിയുമ്പോൾ അതിനോടുള്ള പിന്നെയും ഇഷ്ടം കൂടുന്നതിന്റെ കാരണം അതാ കോളിറ്റിയിൽ നല്ലതാണെങ്കിൽ പിന്നെയും പിന്നെയും നമ്മളത് കഴിക്കാറുണ്ട് അത്യാവശ്യം ഡയറി മിൽക്കിന്റെ ഇത് പറഞ്ഞാൽ നല്ല ചോക്ലേറ്റ് തന്നെയാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടമാണ് എത്ര കഴിച്ചാലും മതിയാവാത്തൊരു രീതിയാണുള്ളത് പരസ്യം കൊണ്ട് തന്നെയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ആ ആ ചോക്ലേറ്റ് ഇടം നേടിയിരിക്കുന്നത് പിന്നെ പിന്നെ അതിന്റെ ആ ഒരു കവറാണെങ്കിലും ഒക്കെ കാണുമ്പോഴേക്കും നമുക്ക് വല്ലാത്തൊരു അനുഭൂതിയാ ആ കവറുപോലും കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് വലിയൊരു അനുഭൂതിയാ തോന്നുന്നത് ചോക്ലേറ്റ് തിന്നില്ലെങ്കിലും ആ പരസ്യം കാണുമ്പോൾത്തന്നെ വയർ നിറഞ്ഞപോലെ ആ ചോക്ലേറ്റ് കഴിച്ചപോലുള്ളൊരു പ്രതീതിയാണ് തോന്നുന്നത്